എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളി എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ് ഫുട്ബോളിൽ ഇത്ന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ ബോള് കിക്ക് ചെയ്യുക കിക്ക് ഓഫ് എടുത്ത് കഴിഞ്ഞ് ബോള് കിക്ക് ചെയ്ത് നമുക്ക് കൊണ്ടോ കിക്ക് ഓഫ് എടുക്കുന്നത് ഗ്രൗണ്ടിന് നടുക്കുള്ള ഒരു വട്ടത്തിൽ വെച്ചിട്ടാണ് എന്നിട്ട് രണ്ട് സൈഡിൽ ഡി ബോക്സാ ഡി ബോക്സിനകത്ത് കയറിയിട്ട് ടാക്കിൽ ചെയ്ത് ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ബോള് മറ്റുള്ള ടീമിനെ എടുക്കാൻ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഡി ബോക്സിന് അടിത്തിന്ന് ഫൗളാണെങ്കിൽ പെനാൾട്ടി കിട്ടും വലക്കകത്ത് അടിക്കുക ആണെങ്കിൽ ഗോള് കയറും ഒരു പ്ലെയറ് ഡിഫൻണ്ടറെ മുന്നി നിന്നിട്ടാണ് ബോളെടുക്കുന്നത് എങ്കിൽ ഓഫ് സൈഡാണ് ഇങ്ങനെ പല റൂളുകളും അതിനകത്ത് നമുക്ക് കാണുൻ ആയിട്ട് സാധിക്കും